എൻ്റെ ഫസ്റ്റ് ഫസ്റ്റ് പ്രോഡക്റ്റ്ന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേസ് ക്രീമാണ് ഫേസ് ക്രീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവിശ്യം നല്ല ഒരു പ്രോഡക്റ്റ് ആണ് അതായത് നമ്മള് നല്ലോണം അതായത് നമ്മള് അത്യാവശ്യം അതായത് വില കുറഞ്ഞിട്ടുള്ള അതായത് ഫെയിസ്ക്രീമെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് അനുസരിച്ച് ക്വാളിറ്റി കുറവായിരിക്കും അപ്പോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല റേറ്റ് ഉള്ള ഫെയിസ്ക്രീം അതായത് അങ്ങനെ നോക്കി മേടിക്കുക അപ്പം ഞാന് ഹിമ അതായത് ഹിമാലയൻറ്റേ അതായത് പിന്നേ കുട്ടികൾക്കൊക്കേ ഉപയോഗിക്കുന്ന ഫേസ് ക്രീം ആണ് യൂസ് ചെയ്യാറ് അതുകൊണ്ടുതന്നേ എനിക്ക് എൻ്റെ മുഖത്തിന് അങ്ങനത്തേ വലിയ പ്രശ്നങ്ങളോ കാര്യമൊന്നുമില്ല അതൊക്കേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മൈൽഡ് ആയിട്ടുള്ള സാധനങ്ങൾ അല്ലേ ഫേസ് ക്രീം പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൺസ്ക്രീൻ ലോഷൻ ഉപയോഗിക്കും വേറൊന്നും ഉപയോഗിക്കാറില്ല പക്ഷേ ഒരുപാട് സൺസ്ക്രീൻ ലോഷൻ ഒക്കേ നമുക്ക് അത്യാവശ്യം നല്ലത് തന്നെയാണ് വെയിലത്തൊക്കേ പോകുമ്പോൾ നമ്മള് അതായത് ഡാർക്ക് സ്പോർട്സുകൾ സ്പോർട്കുൾ ഒന്നും ഉണ്ടാകാതിരിക്കാൻ നല്ലതാണ് അപ്പോൾ ഞാൻ കൂടുതലും സൺസ്ക്രീൻ ലോഷനും അതായത് ഹിമാലയൻറ്റെ ഫേസ് ക്രീമും മാത്രമാണ് യൂസ് ചെയ്യാറ് എനിക്ക് അത്യാവശ്യം നല്ല റിസൾട്ടും കിട്ടാറുണ്ടായിരുന്നു അപ്പം പിന്നേ പൊതുവേ നമ്മള് യൂസ് ചെയ്യുമ്പോൾ അത്യാവശ്യ റേറ്റ് കൂടിയത് നോക്കുക പിന്നേ മൈൽഡ് ആയത് നോക്കുക പിന്നേ സൺ പ്രൊട്ടക്ഷൻ സൺസ്ക്രീൻ ഒക്കേ ഉപയോഗിക്കുമ്പോൾ നമ്മള് സൺ പ്രൊട്ടക്ഷൻ ഫ്രീയാണോന്ന് നോക്കുക